എനിക്കൊരു ഇൻഷുറൻസ് ചേരണമായിരുന്നു

മ് മ് ആ അപ്പം എനിക്കൊരു ഫാമിലി ഇൻഷുറൻസ് ചേരണം അത് എങ്ങനെയാണു എത്ര രൂപയാണ് എന്താണ് അതെ അതെ നാലാൾക്ക് മ് അതും ആഴ്ച മാസം മൂന്ന് മാസം കൂടുമ്പഴാണോ അതോ ആറുമാസത്തിനോ മ് മ് മ് ആ ഓ അതിനു എന്തൊക്കെയാണ് വേണ്ടത് അത് നമ്മൾക്ക് എത്ര വർഷത്തിനാണ് ഞങ്ങൾക്ക് കിട്ടുക

ആ അതിന് അത് ഇരുപത് ഇരുപതു വർഷം നമ്മള് കറക്റ്റായിട്ട് അടയ്ക്കണം ഓ ആ ഇരുപതു വർഷം അതിൻ്റെ ഇടയില് നമുക്ക് തിരിച്ച് എടുക്കാൻ എടുക്കാൻ പറ്റുമോ വേറെ ഇൻഷുറൻസു പോലെ അതോ ഇതുപോലെ ഇത് അടച്ചു കഴിഞ്ഞു ലാസ്റ്റ് തന്നെ കിട്ടുള്ളൂ

അതില് ചേരണമെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് വേണ്ടത് ഫോർമാറ്റ്സ്

അപ്പം ഇതൊക്കെ കൊണ്ട് ഞാന് എപ്പഴാ എപ്പഴാണ് ഇത് നിങ്ങളുടെ കയ്യില് തരേണ്ടത് ഓ ഞങ്ങള് തന്നെ ഞങ്ങള് നാലു പേരും വരണോ അതോ ആ

ഓ ശരി അങ്ങനെയാണച്ചാൽ വളരെ ഉപകാരമായി ഞാനപ്പഴേക്കും പൈസയും ഫോട്ടോയും അധാർകാർഡും ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഒക്കെ കറക്റ്റായി എടുത്തു വയ്ക്കാം അപ്പം നിങ്ങള് വരുന്ന സമയത്ത് എന്നാൽ ഇങ്ങട് കേറിയാൽ മതി ഓ ശരി ഓ എടുത്തു വയ്ക്കാം എടുത്തു വയ്ക്കാം